ആ ഡോക്ടർ ആണ് പറഞ്ഞോളൂ ആ ഓക്കെ

ആ അല്ല ഇവിടെ സ്കാന് ചെയ്യാൻ വന്ന് സ്കാന് ചെയ്തിട്ട് ഉണ്ടായിരുന്നോ

ആ ഓക്കെ തൈറോയിഡ് അങ്ങനെ ഒക്കെ ചെക്ക് ചെയ്തോ ആ അപ്പം യൂറിനും ബ്ലഡ്ഡും എല്ലം ചെക്ക് ചെയ്തത് ആണോ ആ അപ്പം മൂത്രം പഴുപ്പിന്റെ ആയിരിക്കാൻ ആണ് ചാൻസ് എന്താ പറയുക റിസൾട്ട് എൻ്റെ കിട്ടിയിട്ട് ഇല്ല അപ്പം അത് കിട്ടി കഴിഞ്ഞാലെ പറയാൻ പറ്റുകയുള്ളു അപ്പം നിങ്ങള് എന്താ പറയുക അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വരും റിസൾട്ട് ഒക്കെ ആയിട്ട് ഒന്ന് വരേണ്ടി വരും ഇപ്പം എന്തെങ്കിലും ആ ഞാൻ ഒരു നാല് മണിക്ക് ആണ് ഉണ്ടാവുക ഹോസ്പിറ്റല് കഴിഞ്ഞിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരുന്നത് ആയിരിക്കും നല്ലത് ആ അതെ അതെ റൂമിലേക്ക് വരുന്നത് ആയിരിക്കും നല്ലത് ഹോസ്പിറ്റൽ ആകുമ്പം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല ആ ഇത്

ആ നിങ്ങൾക്ക് കറൻറ്റ് ആയിട്ട് തന്ന ഗുളിക ഒക്കെ തീർന്നിട്ട് ഉണ്ടോ ആ ഓക്കെ അപ്പം നന്നായി വെള്ളം കുടിക്കണം കേട്ടോ നന്നായി ഭക്ഷണം കഴിക്കണം സമയത്തിന് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ

ആ അത് ഒക്കെ എടുത്തിട്ട് ഇപ്പം ഇന്ന് വരാൻ പറ്റുവെങ്കിൽ നാല് മണിക്ക് ശേഷം വരിക അല്ലെങ്കിൽ നാളെ നാല് മണിക്ക് ശേഷം വരിക ഹോസ്പിറ്റലിലേക്ക് വരുമ്പമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കൂടുതൽ ആയിട്ട് നോക്കാൻ പറ്റില്ല കാരണം കുറെ പേര് ഇല്ലെ ആ ആ ആ ആ അത് ചിലപ്പം യൂറിൻ ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലെൽ ഇപ്പം നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എന്നാലെ പറയാൻ പറ്റുകയുള്ളു ഇപ്പം ബ്ലഡിൻ്റ എന്തെങ്കിലും പ്രോബ്ലം ആണൊന്ന് പറയാൻ പറ്റില്ലല്ലൊ ആ എന്നാൽ താഴത്ത് മെഡിക്കൽ ഇവിടേക്ക് വിളിക്കേണ്ട വെരും മെഡിക്കൽ ലാബിലേക്ക് വിളിക്കേണ്ട വരും ആ അവിടെ ബുക്ക് ചെയ്തോ അത് അവിടെ നിന്ന് ടോക്കൺ തരും ആ ആ സൺഡേ ഉണ്ട് സൺഡേ ഫുൾ ആണ്

ആ ഓക്കെ